പതിനായിരം ഇരപ തിനായിരം അൻപതിനായിരം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുപത്തഞ്ച്